ഞാൻ അങ്ങനെ ഫാക്ടറികൾക്കു വേണ്ടിയൊന്നും ജോലി ചെയ്യുന്ന ആളല്ല എങ്കിലും അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടുതൽ മികവുറ്റ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അത് സാധിക്കുന്നത്രയും വില മനുഷ്യന് ജനങ്ങൾക്ക് വാങ്ങിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ വില കുറച്ചുമൊക്കെ ആദ്യമേ നൽകും അങ്ങനെ സാധനങ്ങളുടെ ക്വാളിറ്റി ജനങ്ങളറിഞ്ഞ് കഴിയുമ്പോൾ അത് കൂടുതൽ ആകർഷരാകും ഉൽപ്പന്നങ്ങളുടെ മികവുകൊണ്ടുതന്നെ അത് ഇപ്പോഴത്തെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഫാക്ടറികളിൽ പലപ്പോഴും ഗുണനിലവാരം കുറവായ ഉൽപ്പന്നങ്ങൾ വരുന്നതുകൊണ്ടാണ് പലരും അതിൽ ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ട് ഫാക്ടറികളേക്കാൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ തനതായ തുന്നൽ രീതികൾ വഴിയുണ്ടാക്കുന്ന സാധനങ്ങൾ ഉള്ളതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു വില പുറത്തുള്ള രാജ്യങ്ങളിൽ ചെയ്യിക്കുമ്പോൾ അതിന് സാധാരണയിൽക്കാളും വില കുറച്ച് കൊടുക്കുവാനായിട്ട് സാധിക്കും ഒന്നും തോന്നുന്നു പാൻറ് ഷർട്ട് സൽവാർ സൂട്ട് മുതലായവയ്ക്ക് ഫാക്ടറികളിൽന്ന് വരുമ്പോൾ കുറച്ചുകൂടെ തുച്ഛമായ വിലയാണ് കാണുന്നത് കൂടുതൽ കൈത്തറി വഴിയുള്ള സാധനങ്ങൾക്ക് നല്ല വിലയുമായിട്ടാണ് കണ്ടുവരുന്നത്